ഹലോ കെ എസ് ഇ ബി അല്ലേ ഞാൻ മാനന്തവാടീന്നായിരുന്നു എൻ്റെ പേര് ബേസിൽ ഇപ്പോൾ ഒരു ചെറിയ എലക്ട്രിസിറ്റി ബിസിനസ്സ് തുടങ്ങാൻ വേണ്ടീട്ടായിരുന്നു അപ്പം ഒരു എലസിറ്റി ബിസിനസ്സ് തുടങ്ങാൻ വേണ്ടിട്ടാണ് അപ്പം അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മിഷീൻസ് കൊടുക്കുന്നത് പിന്നെ എലക്ട്രിക്കല് കാര്യം സാധനങ്ങൾ അങ്ങനെ ഒക്കെ കൊടുക്കുന്ന ഒരു ഇതാണ് അപ്പം അതിനെങ്ങനെ ആണ് ലൈസൻസ് കാര്യങ്ങൾ ഒക്കെ അപ്പം അതെക്കെ ചോദിക്കാൻ വേണ്ടീട്ടായിരുന്നു പിന്നെ കറണ്ട് ബില്ല് കാര്യങ്ങൾ ഒക്കെ ഇപ്പം എങ്ങനെയായിരിക്കും ഒരു കുറച്ച് കുറച്ചെക്കെ തരാൻ പറ്റുമോ മറ്റെ എലക്ട്രിക്കല് മെഷീൻസൊക്കെ കുറെ വർക്ക് ചെയ്യുമ്പോൾ കുറെ ഇതൊക്കെ ആവൂല്ലെ അപ്പം അങ്ങനെ നോക്കാൻ വേണ്ടീട്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇളവൊക്കെ കിട്ടുവായിരുന്നെങ്കിൽ പിന്നെ സോളാ ഇതെക്കെ ഉണ്ടായിരുന്നു അപ്പം അതെക്കെ വെച്ച് നോക്കി കുറച്ച് കാര്യങ്ങൾ നോക്കാനായിരുന്നു അപ്പം എങ്ങനെ ഈ എലട്ട്സിറ്റി ലൈസൻസൊക്കെ എടുക്കണമോ ഇങ്ങനത്തെ ഒരു ബിസിനസ്സ് തുടങ്ങാനായിട്ട്